ദേശീയ അന്തർദേശീയ തലത്തിൽ നടത്താറുള്ള മത്സരങ്ങൾ എന്ന് പറയുമ്പോഴ്ത്തേനും ദേശീയ ഫുട്ബോൾ മത്സരങ്ങൾ അത് പോലെ ദേശീയ ക്രിക്കറ്റ് മത്സരങ്ങൾ എൻ്റെ പ്രദേശത്ത് നടത്താറുണ്ട് എന്നു പറയുമ്പോഴ്ത്തേനും തൊടുപുഴ ക്രിക്കറ്റ് ഗ്രൗണ്ടല്ലെങ്കിൽ നെടുങ്ങണ്ടം സ്പോർട്സ് കോംപ്ലക്സ്കിൽ അല്ലെങ്കിൽ കെട്ടപ്പന്നൽ മുൻസിപ്പൽ കോംപ്ലക്സ് അവിടെ നടത്താറുണ്ട് അതുപോലെ തന്നെ കബഡി ദേശീയ തലത്തിൽ അന്തർ ദേശീയ തലത്തിൽ കബഡി നടത്താറുണ്ട് അതുപോലെ ദേശീയ തലത്തിൽ സെവൻസ് ഫുട്ബോൾ നടത്താറുണ്ട് അതുപോലെ വടം വലി അന്തർ ദേശീയ തലത്തിൽ ഇടുക്കിയിൽ നടത്താറുണ്ട് അത് എൻ്റെ പ്രദേശമായ കട്ടപ്പനയിൽ നടത്താറുണ്ട് അങ്ങനെ പറയുമ്പോഴത്തേനും കബഡിയിൽ ആണെങ്കിൽ ഏഴ് പേരും ഏഴും ഏഴും പതിനാല് പേര് ഏഴ് പേര് ഇടുക്കീന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകാം അവരും ചിലപ്പം പഞ്ചാബീന്നുള്ളവർ ആയിരിക്കാം അടുത്ത് കബഡി അംഗങ്ങൾ അങ്ങനെ അവർ വരും അതുപോലെ തന്നെ വടം വലിയിൽ ആണെങ്കിൽ പതിന് ഏഴ് പേരും ഏഴും ഏഴും പതിനാലും അത് പുറകോട്ട് വലിക്കുമ്പോഴ്ത്തേനും ജയിക്കുന്ന ഏക ഒരു മത്സരം ആണ് അങ്ങനെ ഇരിക്കുമ്പോഴ്ത്തേനും കബഡി അത് കേരളത്തിൽ ഉള്ളവരും അതുപോലെ അന്തർ ദേശീയ തലത്തിലുള്ളവർ വരെ ഇടുക്കിയിൽ കട്ടപ്പന വന്ന് മത്സരിച്ചിട്ടുണ്ട് അതു പോലെ തന്നെ ഫുട്ബോളെന്ന് പറയുമ്പോഴ്ത്തേനും അന്തർ ദേശീയം ഇല്ലെങ്കിലും ദേശീയമായിട്ടും മത്സരം വന്നിട്ടുണ്ട് കാരണം ഇടുക്കിയിൽ കട്ടപ്പനയിൽ അല്ലെങ്കിൽ നെടുങ്കണ്ടത്ത് അവിടെ അല്ലെങ്കിൽ മൂന്നാറിൽ മൂന്നാറിൽ എപ്പോഴും നടക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ടാറ്റാടെ മത്സരം ടാറ്റാടെ പണ്ട് തൊട്ട് ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി തൊള്ളായിരത്തിൽ നടന്നോണ്ടിരുന്ന ഇന്ത്യൻ ഫ ഇന്ത്യയിലെ ഇൻഡിപ്പെൻഡൻസിന് മുൻപ് സ്വാതന്ത്ര്യത്തിന് മുൻപേ നടന്ന് കൊണ്ടിരുന്ന ഒരു കപ്പ് ടൂർണമെൻറ്റുണ്ട് അത് ഇപ്പോഴും പുറത്തെന്ന് മധ്യപ്രദേശം ആസാമിന്ന് ഒക്കെ ടീം വരാറുണ്ട് ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള ടീമുകൾ ഇടുക്കിയുമായിട്ടുള്ള ടീമുകൾ മത്സരിക്കാറുണ്ട് അതിൽ പതിനൊന്ന് മുതൽ ഇരുപത്തി രണ്ട് പേർ അതിൽ പ്രായം കൂടിയവർ ഒരു ഇരുപത്തി ആറ് ഇരുപത്തി നാല് ഇരുപത്തി രണ്ട് പ്രായമുള്ളവരാണ് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ക് വിനോദങ്ങളിൽ പങ്കെടുക്കുന്ന ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ തന്നേൽ കൂടിപ്പോയാൽ ഇരുപത്തി എട്ടാണ് കാരണം ഇരുപത്തി ഒൻപത് മുപ്പത് വയസ്സായ ആൾക്കാർക്ക് ഒക്കെ ചില സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല അതുപോലെ ഈ ഈയൊക്കെ മത്സരങ്ങൾ അതുപോലെ ക്രിക്കറ്റ് ദേശീയ ക്രിക്കറ്റ് മത്സരം ഒക്കെ ഇടുക്കി തൊടുപുഴയിലോ അല്ലെങ്കിൽ നെടുംങ്കണ്ടത്ത് വരാറുണ്ട് ദേശീയ മത്സരം എന്ന് പറയുമ്പം കേരള ടീം വാസസ് പഞ്ചാബ് അല്ലെങ്കിൽ കേരള ടീം വാസസ് മഹാരാഷ്ട്ര ഒരു തവണ സേത് ഹലി മുസ്റ്റാക്കലി ട്രോഫി കേരളത്തിൽ ഒന്ന് നടന്നത് ഈ നെടുംങ്കണ്ടത്ത് ആണ് ആ നെടുംങ്കണ്ടത്ത് നടന്നത് കേരളം വാസസ് ആന്ധ്രപ്രദേശ് ഇതിൽ കേരളം ആറ് വിക്കെറ്റിന് തോറ്റു പോയെങ്കിലും സഞ്ചൂൻറ്റൊരു മികച്ചൊരു ബാറ്റുണ്ടായിരുന്നു ബാറ്റിങ് റൺസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ആ പതിനൊന്ന് പേര് ആത്മർഥത കളിച്ചാണെങ്കിലും പക്ഷേ അവർക്ക് ഭാഗ്യമില്ലാതായി നിർഭാഗ്യമായി പോയത് കൊണ്ട് മാത്രം അവർ തോറ്റുപോയി ആ മത്സരത്തിൽ ഇരുപത്തി രണ്ട് പേര് അതുപോലെ തന്നെ കോച്ച്മാരുൾപ്പെടെ വരുമ്പോഴ്ത്തേനും ടീമിൽ മുപ്പത്തി രണ്ട് അംഗങ്ങളാണ് വരുന്നത് അതിൽ പ്രായമുള്ള കോച്ചെന്ന് പറയുമ്പോഴ്ത്തേനും ഒരു ഇര് മുപ്പത് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും മുകളിൽ ഉള്ളവരും ഒരു അൻപത് വയസ്സിന് ഇടക്കുള്ളവരും ആയിരിക്കും കോച്ചെന്ന് പറയുമ്പോഴ്ത്തേനും ജീവിതത്തിൽ ഓരോരോ ഭാഗങ്ങൾ കണ്ട് എല്ലാം കണ്ടുപിടിക്കുന്ന ആൾക്കാരായിരിക്കും അതിൽ അവർക്ക് എന്ന് പറയുമ്പോഴ്ത്തേനും എല്ലാം അറിയാം എല്ലാ കായിക ഇനങ്ങളും എവിടെ നടത്തണം എങ്ങനെ നടത്തണമെന്ന് അറിയാം അതുപോലെ ഇടുക്കിയിലുള്ള ഇടുക്കിയിലുള്ള ഈ കായിക വിനോദങ്ങൾ എല്ലാം നടത്തുക ഒന്നെങ്കിൽ പഞ്ചായത്തായിരിക്കും അല്ലെങ്കിൽ ഓരോരോ സാർ ഏതേലും സർവീസ് സ് ഉള്ളവർ ആയിരിക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ് ദേശീയ അല്ലെങ്കിൽ അന്തർ ദേശീയ തലത്തിൻ്റെ സെക്രട്ടറിമാരായിരിക്കും ഏതെങ്കിലും കായികവിനോദത്തിൻ്റെ അങ്ങനെ നോക്കുവാണെങ്കിൽ പറയുമ്പോഴ്ത്തേനും ഒരു ക്രിക്കറ്റോ ഫുട്ബോളോ അതുപോലെ തന്നെ ടെന്നീസോ ടെന്നീസൊക്കെ അന്തർ ദേശിയം ഇവിടെ നടക്കാറുണ്ട് കാരണം നമ്മുടെ മരിയകൊളുസ്സ് കുട്ടിക്കാലത്ത് അന്തർദേശീയ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു കാരണം അത്രയും നല്ലൊരു കോളേജിൽ ഇത്ര നല്ലൊരു മത്സരം നടക്കുക എന്ന് പറയുമ്പം തന്നെ കാര്യമല്ലേ അതുപോലെ തന്നെ ദേശീയ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അ ഒട്ടനവധി കിക് ബോക്സിങ്ങ്കളൊക്കെ ദേശീയ മത്സരങ്ങൾ നടക്കുന്ന കൊട്ടിക്കാരത്താണ് അവ അന്നേരം പറയാം ദേശീയ തലത്തിൽ ഓരോരോ പ്ലെയേസ് വരും അവർ ചിലപ്പം നാല് പേരടങ്ങുന്ന ടീമായിട്ടായിരിക്കും ചിലപ്പം പത്ത് പേരടങ്ങുന്ന ടീമായിട്ടായിരിക്കും വരുന്നത് പക്ഷേ അവർ ഇന്ന മത്സര ഇനങ്ങൾ വിവിധതര മത്സരങ്ങളാണ് ഒറ്റക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഇനങ്ങളാണ് അത് പക്ഷേ അതിൽ നിന്ന് പ്രത്യേകത എന്ന് പറയുമ്പോഴ്ത്തേനും ഇത് ടൂർണമെൻറ്റിൽ പ്രത്യേകത എന്ന് പറയുമ്പോഴ്ത്തേനും നമുക്ക് മനസ്സിലാക്കാം ആ അതിൽ മത്സരിച്ച് പ്രായം കുറവായോണ്ട കാരണം അതിൽ ഓരോരോ ലെവലുകളുണ്ട് സ ജൂ സബ് ജൂനിയർ കിഡീസ് സബ് ജൂനിയർ ജൂനിയേഴ്സ് സീനിയേഴ്സ് അന്നേരം പിന്നെ ട്വൻറ്റി ത്രീ വയസ്സ് എബോവ് പിന്നെ ഏജ് കാറ്റഗറിയുണ്ട് ഇലവൻ ടു തേർട്ടീൻ തേർട്ടീൻ ടു എയ്റ്റീൻ എയ്റ്റീൻ ടു ട്വൻറ്ററി വൺ ട്വൻറ്ററി ടു എബോവ് അങ്ങനെയാണ് ഏക്ക് ഏജ് കാറ്റഗറി വരുന്നത് അതിൽ തന്നെ മത്സരം വരുമ്പോഴ്ത്തേനും ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവ് ഉണ്ടെങ്കിൽ നമുക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റ ദേശീയ ദേശീയ തലത്തിൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ കേരളം ഇടുക്കീന്നുള്ളാണ് സച്ചിൻ ബേബിന്ന് പറയുന്ന ക്രിക്കറ്റ് പ്ലെയർ ക്രിക്കറ്റ് പ്ലെയർ ഇവിടുത്തെ സാധാ സ്ഥലത്ത് നിന്ന് കളിച്ച് വളർന്ന് ഇവിടുത്തെ അടിമാലി ഗ്രൗണ്ടിലോ കളിച്ച് വളർന്നിട്ട് ഇന്ത്യൻ ടീമിലോ അതുപോലെ തന്നെ കേരള ടീമിലും അതുപോലെ ഐ പി എല്ലിൽ ബാംഗ്ലൂരിന് വേണ്ടീം എല്ലാം കളിച്ചിട്ടുള്ള പ്ലെയറാണ് സച്ചിൻ ബേബി സച്ചിൻ ബേബിക്ക് ഒരു കാലത്ത് കേരളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു രഞ്ജിത്ത് ട്രോഫിലും അതുപോലെ തന്നെ സൈദ് അഗി അലി മുസ്റ്റാക്കലി ട്രോഫിലും അതുപോലെ തന്നെ ഓരോരോ വിവിധ ടൂർണമെൻറ്റുകളും അങ്ങനെ വച്ച് നോക്കുമ്പോഴ്ത്തേനും അവിടെ വന്ന് ദേശീയ തലത്തിൽ പ്ലെ ക് പ്ലയേഴ്സ്ന്ന് പറയുമ്പോഴ്ത്തേനും പുള്ളിടെ കൂടെ കളിച്ച് പതിനൊന്ന് പേരും ഇപ്പോൾ ഓരോരോ നല്ല നിലയിലാണ് കാരണം ആ പതിനൊന്ന് പേർക്കും അവർക്ക് ഈ ഫുട്ബോള് കളിക്കുമ്പോഴ്ത്തേനും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോഴ്ത്തേനും മറ്റുള്ള രാജ്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനമായിട്ട് ഒന്നും ഒക്ക് ഇടപെടാനും അവരുടെ രീതികളും അവരുടെ ശൈലികളും എല്ലാം മനസ്സിലാക്കാനും അവരോടൊത്തൊന്നു മിണ്ടാനും അതുപോലെ നെറ്റ്വർക്കിംഗെന്ന് പറയുന്ന ഇമ്പോർട്ടൻറായ കാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കുവാണെങ്കിൽ സ്പോർട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകുന്ന കുറച്ച് പ്രദേശം ഇടുക്കിയിലുള്ള കട്ടപ്പന മൂന്നാറ് നെടുങ്ങണ്ടം അങ്ങനെ നോക്കുവാണെങ്കിൽ അങ്ങനെ കുറെ കുറെ സ്ഥലം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഈ ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കട്ടപ്പനയിൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് കിക്ക് ബോക്സിങ് ഇൻറ്റർനാഷണൽ കിക്ക് ബോക്സിംഗൊക്കെ പക്ഷേ ഈ നാഷണൽ കിക്ക് ബോക്സിങ് വെച്ചിട്ടുണ്ട് ദേശീയ കിക്ക് ബോക്സിംഗ് അങ്ങനെ നോക്കുവാണെങ്കിൽ കട്ടപ്പനയിൽ മികച്ചതായി നിൽക്കുന്ന കിക്ക് ബോക്സിങ്ങുണ്ട് അതുപോലെ തന്നെ കരോട്ടയുണ്ട് കരോട്ട അന്തർ ദേശീയ തലത്തിൽ കരോട്ട കട്ടപ്പനയിൽ നടത്തീട്ടുണ്ട് അതിൽ ഇടുക്കീന്നുള്ള ഇരുപത് പേരാണ് ആ പങ്കെടുത്ത ടീം അതിൽ പ്രായമുണ്ടായിരുന്നത് അണ്ടർ ട്വൻറ്റി വണ്ണായിരുന്നു അണ്ടർ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെ ഉള്ളവർ മത്സരിച്ച മത്സരം ആയിരുന്നു അതിൽ തന്നെ ഇടിക്കിന്നുള്ള ഡിനൽ തോമസിൻ്റെ ടീമിൽ നേതൃത്വത്തിലുള്ള ടീമ് മത്സരിച്ച് പങ്കെടുത്ത് വിജയിച്ചായിരുന്നു അങ്ങനെ വച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ആ ടൂർണമെൻറ്റ് നമ്മുടെ പ്രദേശമായ കട്ടപ്പനയിൽ നടത്തുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൽ ഒന്ന് പങ്കെടുക്കാനും അതിൽ ഒന്ന് കാണാനും എങ്ങനെയാണ് ഒരു അന്തർദേശീയ മത്സരം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ്